നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസുണ്ടോ എന്ന് ചോദിക്കാണെങ്കിൽ എനിക്കുണ്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കുമുണ്ട് ഇൻഷുറൻസിൻ്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമായതുകൊണ്ടന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു ആരോഗ്യ ഇൻഷുറൻസുണ്ട് ഞങ്ങൾക്കും വീട്ടിലെ എല്ലാവർക്കുമുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഇത് ഉപയോഗിച്ച്ണ്ടോ ട്ട്ണ്ടോന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് വീട്ടിലൊരാൾക്ക് അമ്മയ്ക്ക് ഒരു പ്രാവശ്യം ഫുഡ് പോയിസണായപ്പോൾ കുറച്ചധികം എമൗണ്ട് സ്പെൻഡെയ്യേണ്ടി വന്നു അപ്പോള് ഈ ഒരെമൗണ്ട് ഡയറക്റ്റ് ഇൻഷുറൻസിലേക്ക് ക്ലെയിം ചെയ്യുവാണ് ചെയ്തത്